നൂറ്റി തൊണ്ണൂറ്റഞ്ച് രാജ്യങ്ങളിൽ അഞ്ചെണ്ണമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ആദ്യമായി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പിന്നീട് കാനഡ ജർമ്മനി ഓസ്ട്രേലിയ ചൈന ഫ്രാൻസ് ഇന്ത്യ എന്നിങ്ങനെ നൂറിൽ നൂറ്റി തൊണ്ണൂറിലധികം രാജ്യങ്ങൾ പിന്നീടുമുണ്ട്